ഹലോ ഗുഡ് മോണിംഗ് ഫ്രണ്ട്സ് ബ്യൂട്ടി പാർലർ ആരാണ് സംസാരിക്കുന്നത് ഓ ഹനാ ഓക്കെ ഓക്കെ ഇവിടെ എല്ലാ തരത്തിലുള്ളതും ഉണ്ട് സ്മൂത്ത്നിങ്ങിൻ്റെ ആണ് പലത് ഹെയർ ട്രീറ്റ്മെൻറ്റ് പല തരത്തിലുണ്ട് ഹെയർ കട്ടിംഗ് ഫെദർ കട്ടിംഗ് ഉണ്ട് സ്റ്റെപ്പ് കട്ടിംഗ് ഉണ്ട് ബോയ് കട്ട് ഉണ്ട് ഏതാണ് മേഡം ഉദ്ദേശിക്കുന്നത്

ഓക്കെ ആ എല്ലാ തരത്തിലും ഉണ്ട് എല്ലാ തരത്തിലും ഉണ്ട് ഞാൻ ഞാൻ തന്നെയാണ് ഹെയർ സ്റ്റൈല് ഹെയർ ചെയ്യുന്നെയാൾ അപ്പം ഫസ്റ്റ് മോളെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ഫുള്ള് കൊച്ചിൻ്റെ ഫേസ് നോക്കിയിട്ട് ഏത് ഇത് ആണ് ചേരുന്നത് എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയാവോ എൻ്റെ പേര് ഷീജ എന്നാണ് ഞാനിവിടെ ട്രെൻസില് ബ്യൂട്ടി പാർലർ കുറേ ആറേഴ് വർഷമായിട്ട് നടത്തിക്കൊണ്ട് വരുന്ന ഒരു ആളാണ് നല്ല രീതിയിൽ ഒരു പേരെടുത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഇതെങ്ങനെയാണ് മേഡം ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ആ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ എല്ലാവിധ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് വളരെ നല്ല മിതമായ മിതമായ രീതിയിൽ അധികം റേറ്റ് മിതമായ റേറ്റിൽ തന്നെയാണ് നമ്മളത് ചെയ്ത് പോകുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം അത് ഞങ്ങൾ ഇവിടെ ഗ്രൂപ്പില് ഇവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ അത് എന്തോ ആ എല്ലാം എല്ലാം ഉണ്ട് ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെയുണ്ട് ആ എല്ലാം ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്താണ് ആ എന്നത്തെയ്നാണ് മേഡം വരുന്നത് ആ സ്ട്രെയിറ്റ് ചെയ്യും സ്ട്രെയിറ്റ് ചെയ്യുന്നതാണ് റേറ്റ് സ്റ്റാർട്ടിംഗ് ഒരു ത്രീ തൗസണ്ട് ആണ് ഹെയർ അനുസരിച്ചാണ് കേട്ടോ ഹെയറിൻ്റെ നീളം അനുസരിച്ചാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ത്രീ തൗസണ്ട് ആണ് പറയുന്നത് ആ മുടിയുടെ നീളം അതെയതെയതെയതെ അതെയതെ ആ അപ്പം അങ്ങനെ ആ ഓക്കെ അത് ഞാൻ ഒന്ന് നേരത്തെയൊന്ന് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതനുസരിച്ച് ബുക്ക് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് എനിക്ക് കസ്റ്റമേഴ്സിനെ അടുത്തയാളെ അപ്പോയ്ൻറ്റ് ചെയ്യാം ആ അതുകൊണ്ട് ഒരു ഒരു തലേദിവസം ഒന്ന് വിളിച്ച് പറയണം കേട്ടോ വരുന്നതിന് മുമ്പ് ആ റെയ്റ്റ് ഇപ്പോൾ ഒന്ന് വന്ന് ഒന്ന് വന്ന് അത് അതിനെകുറിച്ചൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ഞങ്ങൾ അതനുസരിച്ചുള്ള റെയ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് തരുന്നതായിരിക്കും അതിനെ കുറിച്ചൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട ഓക്കെ അധിക അധിക റേറ്റ് ഒന്നും ആ നല്ല വർക്ക് തന്നെയാണ് നല്ല വർക്ക് തന്നെ ഇതുവരെയും കസ്റ്റമേഴ്സ് കംപ്ലെയ്ൻറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ നന്നായിട്ടാണ് ചെയ്തു പോകുന്നത് ഇതുവരെ ഒരു പരാതിയൊന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് ആരുവേണമെങ്കിലും എന്തുവേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം ആരെവേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഞങ്ങൾ പല പല നമ്പര്കൾ തരുന്നതായിരിക്കും അത് വേണേ നിങ്ങൾക്ക് അത് വിളിച്ച് ഇൻഫോം ചെയ്യാം എന്താ ചോദിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു